അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നാല് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്